ഞാൻ പുതിയ പാചകവിധികളെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് ഞാൻ കൂടുതലും യൂട്യൂബ് തന്നെയാണ് അതായത് യൂട്യൂബിൽ ആണല്ലോ ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ഇപ്പോൾ ആരോടും ചോദിക്കണമെന്നൊന്നുമില്ല ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് വയ്ക്കണമെന്ന് വെച്ചോ ഇപ്പോൾ വയ്ക്കണം എന്ന് ഉണ്ട് പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് അറിയില്ല അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊന്നും അറിയില്ല അതിൻ്റെ സ്റ്റെപ്പുകൾ ഒന്നും അറിയില്ലെങ്കിൽ നമ്മള് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് പലവിധ അതായത് നമ്മള് റിവ്യൂസ് കൂടുതലുള്ളത് ആണ് കൂടുതലായിട്ടും എടുത്തു കാണാറ് റിവ്യൂസ് കുറവുള്ളത് അങ്ങനെ കാണാറില്ല പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അടിയിലുള്ള കമൻസ് കാര്യങ്ങളൊക്കെ നോക്കും അതായത് അവര് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായങ്ങള് കാര്യങ്ങൾ ഒക്കെയാണോ എല്ലാവരും അതായത് ബാഡ് ആയിട്ട് ആരും ഒന്നും പറയുന്നില്ലല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കൂടുതലായിട്ടും ഫുഡ് ഉണ്ടാക്കാറ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അമ്മേനെ കുറിച്ച് അതായത് അമ്മേനോടും ചോദിക്കും ചിലപ്പോൾ ചിലതൊക്കെ ഞാൻ കൂടുതലും അമ്മ അമ്മേനോട് ചോദിക്കും പിന്നെ കൂടുതലായിട്ടും നെറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫോണിൽ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ടും ഫോൺ നോക്കിയിട്ടാണ് ഓരോ പാചകങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാറ് ആദ്യമൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനോട് ചോദിച്ചിട്ടാണ് കൂടുതലായിട്ടും ചെയ്യാൻ ശ്രമിക്കാറ് ഇപ്പോഴാണ് യൂട്യൂബ് ഒക്കെ നോക്കാൻ തുടങ്ങിയത്